ആറ് ഏഴ് രണ്ടായിരത്തി പത്ത് എട്ട് രണ്ട് രണ്ടായിരത്തി നാല് ഒൻപത് ആറ് രണ്ടായിരത്തി ആറ് പത്ത് നാല് രണ്ടായിരത്തി അഞ്ച് ഏഴ് എട്ട് രണ്ടായിരത്തി എട്ട് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഒൻപത്